ബ്രസീലിയൻ സാഹിത്യകാരനായ പൗലോ കൊയ്ലോ എഴുതിയ അതിപ്രശസ്തമായ ഒരു നോവലിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ദി ആൽക്കമിസ്റ്റ് ഒരു ആധുനിക ക്ലാസിക് ആയി വാഴ്ത്തപ്പെട്ട ഈ കൃതി ആയിരത്തിത്തൊള്ളായിരത്തി എമ്പത്തി എട്ടിലാണ് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് പോർച്ചുഗീസ് ഭാഷയിൽ രചിക്കപ്പെട്ട ഈ നോവൽ അറുപത്തേഴ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ജീവിച്ചിരിക്കുന്ന ഒരു സാഹിത്യകാരൻ്റെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതി എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടി നൂറ്റി അയിമ്പത് രാജ്യങ്ങളിലായി അറുപത്തഞ്ച് ദശ ലക്ഷത്തിൽ പരം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു ആട്ടിടയനായ സാൻഡിയാഗോ ഈജിപ്തിലെ പിരമിഡുകൾക്ക് സമീപം ഒരു നിധിയുണ്ടെന്ന് ഒരു സ്വപ്നം കാണുന്നു ജീവിതം സുഖം മോഹിച്ച് ഈ നിധി തേടി പോകുന്ന സാൻഡിയാഗോയുടെ യാത്രയും മുഖാമുഖം നടത്തുന്ന സ്ഥലങ്ങൾ ആളുകൾ സംഭവങ്ങൾ എന്നിവയും അവതരിപ്പിക്കുന്നു സ്വപ്നം വിശകലനം ചെയ്യുന്ന വൃദ്ധ രാജാവാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആൾ ബേക്കറിക്കാരൻ മരുഭൂമിയിൽ സ്പടികപാത്രം വിൽകുന്ന ആൾ മരുഭൂമിയും ഒരു പ്രധാന കഥാപാത്രം ആകുന്നു ഫാത്തിമയെ കണ്ടെത്തിയ ഇടവേളകൾക്ക് ശേഷം സാൻഡിയാഗോ യാത്ര വീണ്ടും തുടരുന്നു ലക്ഷ്യസ്ഥാനത്ത് എത്തിയെങ്കിലും ജീവിതയാത്ര വെളിപ്പെടുന്ന മട്ടിലായി അവന്റെ യാത്ര അവസാനം ലോകം ചുറ്റി സഞ്ചരിക്കാനും നിധികൾ കണ്ടെത്താനും സ്വപ്നം കാണുകയും തൻ്റെ ആഗ്രഹങ്ങളുടെ ദിശയിൽ നടക്കാൻ ധൈര്യപ്പെടുകയും ചെയ്യുന്ന ഇടയൻ കുട്ടി തൻ്റെ വിധി വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും മികച്ച മനസ്സിലാക്കാൻ അദ്ദേഹം സ്പെയിനിലെ തൻ്റെ വീട്ടിൽ നിന്നും ടാഞ്ചിയോസിൻ്റെ ചന്തകളിലൂടെയും വലിയ ഈജിപ്ഷ്യൻ മരുഭൂമിയിലേക്കും യാത്ര ചെയ്യുന്നു സ്നേഹം അനുഭവിക്കുന്നു നഷ്ടപ്പെടുന്നു പണം സമ്പാദിക്കുന്നു മറ്റൊരു ഭാഷ പഠിക്കുന്നു വ്യത്യസ്ത ആളുകളെ കണ്ടുമുട്ടുന്നു സുഖകരവും അത്ര സുഖകരമല്ലാത്തതുമായ സാഹചര്യങ്ങൾ സ്വയം കണ്ടെത്തുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര സാഹസികതയും പാഠങ്ങളും നിറഞ്ഞതാണ് അതേസമയം ഒരു രാജാവിൻ്റെ മരുഭൂമിയിലെ സ്ത്രീയെയും ഒരു ആൽക്കമിസ്റ്റിനെയും കണ്ടുമുട്ടാനുള്ള പദവിയും അദ്ദേഹത്തിന് കണ്ടെത്തുന്നു ഓരോ വ്യക്തിയും വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത് ഇതിലെ യാത്ര എന്നതാണ് ജീവിതം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും തൊട്ടുരുമ്മി ചെയ്യുന്ന ഒരു രചനയാണ് പൗലോ കൊയ്ലോയുടെ അൽക്കമിസ്റ്റ്